ഹലോ ബ്രോ ഞാനൊരു ജേർണലിസ്റ്റാണ് മറ്റേ ഓർഫണേജ് പരമായ കുറച്ച് ഓർഫണേജ് പ്രൊജക്റ്റ് പരമായ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഞങ്ങളിപ്പം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓർഫണേജ് പ്രോജക്റ്റ് അതായത് നിങ്ങൾ എങ്ക ഓർഫണേജ് പിള്ളേർക്ക് എഡ്യൂക്കേഷൻ നൽകുന്നു അതായത് എങ്ങനെയാണ് നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് എടുക്കുന്നത് അവരുടെ അവരുടെ ഐ ക്യു എങ്ങനെയാണ് കൂട്ടുന്നത് അത് അതിൻ്റെ ഒക്കെ ഓരോ പ്ലാൻസ് അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജിസ് അല്ലേൽ മെത്തെർഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യുമോ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേറെ വേറെ സ്ട്രാറ്റജിസെല്ലാം അതായത് പിള്ളേരെ ഈ അച്ഛന്മാരെ അച്ഛന്മാർ വഴി അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിട്യൂട്ടിഷൻസിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്ന് ഇവരെ ഇന്നോവേറ്റെയ്യുന്ന രീതിയിൽ ഉള്ള പഠിപ്പുകളോ സ്ട്രാറ്റജിസൊ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഓക്കെ അപ്പം വേറെ പരമായ റീസെർച്ചസൊന്നും റീസെർച്ചസൊന്നും നടത്തുന്നില്ലേ അതായത് ഇപ്പം എങ്ങനെ ഇത് ഇപ്പം ഇവരുടെ സ്റ്റഡീസ് മാത്രം നോക്കിയാൽ പോരല്ലോ ഇവരുടെ ലൈഫ് അതായത് ഇവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഉള്ള ഓരോ ഏർപ്പാടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഏജൻസിസ് വഴിയൊന്നും ഇവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അങ്ങനത്തെ പരമായ എന്തേലും സ്ട്രാറ്റജീസ് കാണുന്നുണ്ടോ ഓക്കെ അപ്പം നിങ്ങളിപ്പം കറൻറ്റ് കറൻറ്റായിട്ടുള്ള ഒരു ഒരു ഏജൻസിയുടെ ഒരു പേര് പറയു ഹലോ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ മച്ച് സാർ ഫോർ യുവർ ടൈം ഓക്കെ